നഗരത്തിലെ പത്രങ്ങൾ ഗ്രാമീണത്തെ സത്യസന്ധമായിട്ടല്ല ചിത്രീകരിക്കപ്പെടുന്നത് ഞാൻ ഒരു ഗ്രാമീണ പ്രദേശത്ത് താമസിക്കുന്നതാണ് എൻ്റെ വീടിനടുത്തു കൂടി ഒരു തോടു പോകുന്നുണ്ട് അവിടെയാണ് എല്ലാവരും മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് പ്ലാസ്റ്റിക് വെയിസ്റ്റ് ഫുഡ് വെയിസ്റ്റ് അങ്ങനെ എല്ലാമുണ്ട് ആരും എന്നിട്ടൊരു പത്രക്കാരേ അവിടോട്ടു വരുന്നതായിട്ടു കാണുന്നില്ല അവരാരുമത് ശ്രദ്ധിക്കുന്നുമില്ല നമ്മളെത്ര വർഷം പാത്രത്തിലിടാൻ പറഞ്ഞാലും ആരുമൊന്നും സ ശ്രദ്ധിക്കുന്നേയില്ല അതുപോലെ തന്നെ മാധ്യമങ്ങൾ പലപ്പോഴും തെറ്റായിട്ടാണ് ഇതു കാണിക്കുന്നതെന്നു ഗ്രാമീണപ്രദേശത്തെ ന്യുസുകളൊന്നും അവരങ്ങനെ ഇടാറില്ല നഗരത്തിലെ കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഇതു ചെയ്യുന്നുള്ളു അതുപോലെതന്നെ ഫു ഇതു വേസ്റ്റിടുന്നതാണെങ്കിലും മണ്ണ് ഒരു സ്ഥലങ്ങളിലൊക്കെ എന്തു മാത്രം പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്നുണ്ട് മണ്ണിടിച്ചിൽ ഇത് വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഒ ന്യൂസുകളൊന്നും പകുതിയും മാധ്യമങ്ങളിൽ വരുന്നില്ല മാധ്യമങ്ങൾ അവരുടേതായ രീതിയിലുള്ള ന്യുസുകൾ മാത്രമാണവർ കൊടുക്കുന്നത്